ഇരുപത്തൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് ഏഴ് രണ്ടായിരം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ആറ് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഒന്ന്